ഇത് കല്ലട ബസ്സല്ലെ ഞാൻ ബാംഗ്ലൂരിലോട്ട് പോകാനായിട്ടൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ഇപ്പോൾ എനിക്ക് ബസ്സിൽ എവ്ലിൻ മരിയ തോമസ് എനിക്ക് വണ്ടിയിലെ സേഫ്റ്റിയിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോയെന്ന് ഉള്ളതൊക്കെ അറിയാനായിട്ട് ആ വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഓക്കെ ആണല്ലൊ അല്ലേ നിങ്ങൾ നിയമം പാലിച്ചു തന്നെയല്ലെ വണ്ടിയോടിക്കുന്നത് ആ ഓക്കെ ശരി